ഹലോ ആ ഹലോ ഞാൻ ആണ് ഈ പാവനാത്മ കോളേജിൽ നിന്ന് വരുവാണ് ഞങ്ങൾ ഇവിടെ ഒരു ഓർഡർ തരാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അടുത്ത ദിവസം ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാർക്കും കഴിക്കാനുള്ള സ്നാക്സും പിന്നെയാണെങ്കിൽ ചായയും അതിന് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഇവിടെ എന്തൊക്കെ ഐറ്റങ്ങളാണ് ഉള്ളത് ഞങ്ങൾ പാവനാത്മ കോളേജ് കോളേജിലാണ് പഠിക്കുന്നത് അപ്പോൾ മുരിയ്ക്കാശ്ശേരി എന്നാണ് സ്ഥലത്തിൻ്റെ പേര് ഇവിടെയാണെങ്കിൽ അന്ന് ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു ഹിസ്റ്റോ ഡാൻസ് അപ്പോൾ മിനിമം ഒരു മുന്നൂറ് നാന്നൂറ് പേര് കാണും അപ്പോൾ അപ്പോൾ നാന്നൂറ് പേരാണേലും നമ്മളൊരിത്തിരി കൂടുതൽ എടുക്കണമല്ലോ അപ്പോൾ ഒരഞ്ഞൂറ് അത്രയും പേർക്ക് ഉള്ള അഞ്ഞൂറ് ചായ അഞ്ഞൂറ് സ്നാക്ക്സ് എന്തൊക്കെയാണ് ഇവിടെ അത്യാവശ്യം എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ സ്നാക്ക്സ് ഉള്ളത് ആ നേർമൽ നേർമലായിട്ടുള്ള പാൽ ചായ മതി അഞ്ഞൂറെണ്ണം മ്മ് അഞ്ഞൂറെണ്ണം മ്മ് ചെറുകടി വയ്ക്കാമെന്ന് ഓർത്തായിരുന്നു അപ്പോൾ എന്താ ചെറുകടിയായിട്ടുള്ളത് എല്ലാം കൂടി മിക്സഡ് ആക്കിയാണോ അതോ ഒരയിറ്റം തന്നെ വയ്ക്കാനായിട്ടാണോ ആ

ആ ഞങ്ങൾക്ക് ഒരു ഇരുപത്തിനാലാം തീയതി ആകുമ്പോഴേക്കും വേണം ആ ആ അത്രയും വേണം

ആ ഹാ അപ്പോൾ ഇതെല്ലാം കൂടി മിക്സഡ് ആക്കിയിട്ട് ഏകദേശം അല്ലന്നെ ഇപ്പം പരിപ്പ് വട ചെറുകടികൾ തന്നെ പരിപ്പ് വട ബോളി ആ ആ ആ ആ ആ അങ്ങനെ അങ്ങനെ ഒരഞ്ഞൂറെണ്ണം തികയ്ക്കുക

ആ അതിന് നമ്മൾ ഒരാൾക്കൊരെണ്ണം വീതം കൊടുക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇപ്പം ചിലവർക്ക് ഒരു കടി ഇഷ്ടപ്പെടണം എന്ന് ഉണ്ടാകില്ലല്ലൊ അതുകൊണ്ട് മാറ്റി മാറ്റി എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാമല്ലോ ആ അത് കൊണ്ടാണ് അപ്പം പരിപ്പ് വടയും ആ ഇത് വേണം കടി ആ ഹാ ഏകദേശം എത്രയാകും ഇതിന് റേറ്റ് ആ ഹാ ആ ഹാ ആ ഡെലിവറി ചാർജെല്ലാം ഉൾപ്പടെ അത്രയും ആകുമല്ലെ ആ അത് കുഴപ്പമില്ല

ആ ഹാ ഹാ കുഴപ്പമില്ല അത്രയും എമൗണ്ട് ഇവിടെ കൊണ്ടെത്തിക്കുല്ലോ ആ ഹാ ഹാ ഒരു പത്ത് ആ പത്തിനൊന്ന് മണി ആകുമ്പഴേക്കും വന്നാൽ മതി ആ ഓക്കെ ഓക്കെ ആ